നമസ്കാരം ആ മേഡം ഓ എന്താണ് പേര് രൂപേഷ് ആയിരുന്നു ഞാൻ പിന്നെ എൻ്റ കുട്ടീനെ നിങ്ങള സ്കൂളിലേക്ക് ഒന്ന് ഒരു അഡ്മിഷൻ എടിക്കണ്ടീറ്റ് ഉള്ള ഒരു ഡീറ്റെയിൽസ് അറിയണ്ടീറ്റ് വിളിക്കുക ആയിരുന്നു അല്ല ഞാൻ അല്ല ഞാൻ ഇവിടെ ആയിരുന്നു ജോലി ഇപ്പം അങ്ങോട്ടേക്ക് ആണ് ജോലി കിട്ടിയത് അപ്പോൾ നമ്മൾ ഫാമിലി അടക്കം അങ്ങോട്ടേക്ക് ആ അതെ അതെ അതെ അപ്പം അങ്ങോട്ടേക്ക് ആണ് ഇത് ഇപ്പം ട്രാൻസ്ഫർ ആയത് അപ്പം അപ്പം നമ്മൾ അവിടെത്തന്നെ ആവുമ്പോൾ നമ്മള ഒരു ഫാമിലിയും ഉണ്ട് അപ്പം അവിടെത്തന്നെ എന്താക്കാം സെറ്റിൽ ചെയ്യാമെന്ന് ഉള്ള ഒരു തീരുമാനത്തില്

നിലവിൽ രണ്ടേ ഉള്ളൂ രണ്ട് കുട്ടി അല്ലേ ഉള്ളൂ ആ രണ്ട് പെൺ കുട്ടികളാണ് മേഡം അതെ അതെ അതെ ഇത് നമ്മൾ ഈ ഏഴിലേക്ക്

ആ നമ്മൾ ഞാൻ പിന്നെ ഇപ്പം അടുത്ത് വരും ഇപ്പം വരും ഈ ഈ വീക്ക് ആ അതെ ഈ വീക്കിൽ തന്നെ വരും അപ്പം മോളെ പഠിത്തത്തിനെ ബാധിക്കില്ലേ പിന്നെ വൈകുന്നത് അനുസരിച്ചിട്ട് അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് എന്തായാലും വിളിച്ചിട്ട് ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി അതിന്റെ ഡീറ്റെയിൽസും കൂടെ അറിയണ്ടീറ്റ് ആ ആ ആ ആ അതെ അതെ അത് അപ്പക്ക് നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ച് റെഡി ആവാൻ പറ്റില്ലേ മേഡം അതെ അപ്പം നമുക്ക് അങ്ങനെ എത്രയാണ് ഡോണേഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഫീസ് അങ്ങനെ അതൊന്ന് ആ

അത് സ്കൂൾ ബസ് ബസ് ഇല്ലേ മേഡം ബസ് ഇല്ലേ ആ ഓക്കെ ഓക്കെ ആ ആ അല്ല ഞാൻ പോവുകയാണെങ്കിൽ അപ്പം ആ ബസ് തന്നെ അവിടെത്തന്നെ അങ്ങോട്ടേക്ക് ആ റൂട്ടിൽ ഉണ്ടെങ്കിൽ പിന്നെ അതല്ലേ നല്ലത് അതെ അതെ ഇത് വലിയ സിറ്റിയും അല്ലേ അപ്പം പിന്നെ ഒറ്റയ്ക്ക് വിടുമ്പോൾ

ആ ആ

ആ ആ ആ നോട്ട് നോട്ടുബുക്ക് അവിടെനിന്ന് ഓക്കെ ഓക്കെ ശരി

ആ അപ്പം അപ്പം ഫീ എത്രയാണ് ഒരു ഇല്ലാണ്ട് ഞാൻ ചോദിക്കുക വെറുതെ അതെ ജസ്റ്റ് ചോദിച്ചെന്നേ ഉള്ളൂ

ആ ഓക്കെ ഓക്കെ ആ ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അത് ഒക്കെ ഞാൻ ഇന്ന് തന്നെ വരുമ്പോൾ ഞാൻ ഇന്ന് ഓക്കെ ഓക്കെ ഓക്കെ ശരി ശരി ശരി ഓക്കെ താങ്ക്യൂ